ദക്ഷിണേന്ത്യൻ ഫുഡ്ഡായിട്ട് എനിക്ക് കഴിയ്ക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം മസാല ദോശയാണ് ദക്ഷിണേന്ത്യൻ ഫുഡ്ഡില് ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മസാല ദോശയാണ് അതവരുടെ വെറൈറ്റി തന്നെയാണ് മസാല ദോശ പാചകം ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യം ഉള്ളതുകൊണ്ടുതന്നെ മസാല ദോശ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ദിവസം ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രത്യേക റെസിപ്പി റെസിപ്പി ആയിരുന്നു പൊട്ടറ്റോൻ്റെ കൂടെ കുറച്ച് റെസിപ്പികളക്കെ ഞമ്മള് ഇഞ്ചിയൊക്കെ ചതച്ച് ഇഞ്ചിയും മുളകും അങ്ങനെയെല്ലാം ചതച്ചിട്ട് അവരിട്ട് ഇട്ടതായിരുന്നു അവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അത് മടക്കാതെ തന്നെ ഞമ്മടെ ഫ്രണ്ടിൽ വന്നിട്ട് അങ്ങനേ ഒരു വലിയൊരു ഒരു ഒരു രണ്ട് പേർക്ക് കഴിയ്ക്കാൻ പറ്റുന്നൊരു ദോശയാരുന്നു അത് അതിൻ്റെ കൂടെ തക്കാളിച്ചമ്മന്തി പിന്നേ സാമ്പാറ് പിന്നേ പിന്ന വന്നിട്ട് ചട്ണി പിന്നേ ഇഡ്ഡലിപ്പൊടി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാരുന്നു പിന്നെ അങ്ങനെ അവര് ചെയ്ത ആ ഒര് റെസിപ്പി ഞാൻ വീട്ടിൽ വന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ കിട്ടിയില്ലെങ്കിലും ഞാന് ദോശ ഒക്കെ പരത്തി അതിലോട്ട് പൊട്ടറ്റോ ഏഡ്ഡ് ചെയ്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയുള്ളി ഒക്കെ ചതച്ച് അതിൻ്റെ കൂടെ കുറച്ച് വറമുളകും കൂടി ചതച്ച് അത് ആ മുളകിനോട് ഉരുളക്കിഴങ്ങിനോട് മിക്സ് ചെയ്തിട്ട് അതിനെ കുറച്ച് ഗ്രേവി പോലെ ആക്കിയിട്ട് അത് വെച്ച് റൗണ്ട് ചെയ്തിട്ട് കഴിച്ചു ഏകദേശം ആ ഒരു ലെവലില് വന്നു പക്ഷെ ദക്ഷിണേന്ത്യൻ ഫുഡ്ഡില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മസാല ദോശ തന്നെയാണ്